നമ്മുടെ വര മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നല്ല രീതിയിലുള്ള നമ്മള് കാര്യങ്ങളൊക്കെ ചെയ്യണം കാരണന്തെന്നു വെച്ചു കഴിഞ്ഞാല് എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഒരു വരയും കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടി സധിക്കുവൊള്ളു കാരണം ഒരു പേപ്പറിൽ നമ്മള് ജസ്റ്റ് വരച്ചാൽ മാത്രം പോര നമ്മള് അതിന് അതിനെ കുറിച്ച് നല്ല രീതിയിൽ പഠിച്ചിട്ട് വേണം വരയ്ക്കാൻ വേണ്ടിട്ട് ഇപ്പോൾ നമ്മള് ഒരാളുടെ മുഖം വരക്കുവാണെങ്കിൽ അയാളുടെ മുഖം നമ്മള് എപ്പഴും ഓർത്തിരിക്കേണ്ട ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെയുണ്ട് നമ്മള് അവരുടെ മുഖം ഏത് സ എപ്പഴും അവരുടെ കണ്ണ് എവിടെയാണ് മൂക്ക് എവിടെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മള് മെയിനായിട്ട് നമ്മുടെ മനസ്സില് എപ്പോഴും ഉണ്ടാവണം എന്നാൽ മാത്രമേ നമുക്ക് അത് വരക്കാൻ വേണ്ടി സാധിക്കുവുള്ളു ഇപ്പോൾ ഓൺലൈൻ തന്നെ പല രീതിയിൽ പഠിപ്പിക്കുന്ന ആൾക്കാറുണ്ട് വരയ്ക്കാൻ വേണ്ടിട്ട് അപ്പം അതൊക്കെ നല്ല രീതിയിൽ നമ്മള് പ്രയോജനപെടുത്തുക നമ്മള് എപ്പഴും പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിലുള്ള ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ വേണ്ടിട്ട് സാധിക്കുവൊള്ളൂ അപ്പോൾ പുതിയ പുതിയ രീതിയിലുള്ള വരയും കാര്യങ്ങളൊക്കെ പഠിക്കണേൽ നമ്മള് നല്ല രീതിയിൽ എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഇപ്പോൾ ഓൺലൈനില് അതായത് യൂട്യൂബ് ചാനലിലൊക്കെ ഉണ്ടാകും ഇഷ്ടംപോലെ പഠിപ്പിക്കുന്ന ആൾക്കാര് അപ്പം അതൊക്കെ നല്ല രീതിയില് നമ്മള് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തി വരയ്ക്കാനൊക്കെ പഠിക്കുക